ഹലോ ബാബുവല്ലേ ഇത് ഞാനാണേ ഷെമീനയാണ് മനസിലായില്ലേ പെരിന്തൽമണ്ണയിലുള്ള കേക്കൊക്കെ ചെയ്യുന്നതില്ലെ ആ ആ ആ അവര് തന്നെ ആ ഷെമീന തന്നെ പിന്നെ ഞാൻ എന്തേ എന്നറിയുമോ വിളിച്ചത് എനിക്ക് പന്ത്രണ്ട് മണിയാവുമ്പത്തിന് പിന്നെ എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരുമോ ഓട്ടോ കൊണ്ട് പിന്നെ എനിക്ക് മലപ്പുറം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പാസ്പോർട്ട് ന് വേണ്ടിയിട്ട് പാസ്പോർട്ടിൻ്റെ സംബന്ധിച്ച ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും ഒന്ന് എത്തുമോ എൻ്റെ ഇവിടെ പിന്നെ ഇപ്പം എവിടെയാണ് എന്തേലും ട്രിപ്പിലാണോ ആണോ ഏകദേശം എത്ര മണിയാവും എത്തണമെങ്കില് എനിക്കൊരു പന്ത്രണ്ടു മണിക്കൊക്കെ പോയാൽ മതി ആ ടൈം ആകുമ്പത്തേനും ഞാനിവിടെ റെഡിയായി നിൽക്കാം അപ്പം എന്നാൽ അത് കഴിഞ്ഞാല് എന്നെ പിക്ക് ചെയ്യാന് വരുമോ എനിക്ക് മക്കളെത്തുമ്പത്തേനും ഇങ്ങോട്ട് വരികയും വേണം അവര് സ്കൂളിൽ നിന്ന് വരുമ്പത്തേനും എനിക്ക് വരികയും വേണം അപ്പോൾ ആ ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വരുമെന്ന് ഒറപ്പ് വേണം അല്ലെങ്കിൽ പിന്നെ ഇത് ക്യാൻസൽ ചെയ്യണം അല്ലെങ്കില് വേറെ ഓട്ടോ ഏതേലും ഏൽപ്പിക്കാനാണ് അപ്പോൾ ബാബു വരുമോ എന്തായാലും എനിക്ക് ഇപ്പോൾ പറയണം കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വിശ്വസ്തായിട്ടുള്ള ആളൊപ്പം പോകുമ്പോൾ അതല്ലേ നല്ലത് അപ്പം അതുകൊണ്ടാണ് അപ്പം എന്നാൽ വരുമോ ആ ടൈം ആകുമ്പത്തേനും എത്തുകയില്ലേ ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ എന്നാൽ ആ പന്ത്രണ്ട് മണി കെട്ടോ പന്ത്രണ്ട് മണിക്ക് ഞാനിവിടെ റെഡിയായി നിൽക്കാം അപ്പം എന്നാൽ അപ്പോഴേക്കും വന്നാൽ മതി ഓക്കെ ഓക്കെ ഓക്കെ